ഇന്ന് കുട്ടികൾ പിന്തുടരുന്ന കളി എന്ന് പറയുന്നത് മൊബൈലിലുള്ള കളികളാണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ സ്വാധീനിച്ചിട്ടുള്ളതും മൊബൈലിലുള്ള കളികളാണ് പണ്ട് കാലത്തുള്ളൊരോ മറ്റ് പന്ത് കളി കോൽകളികൾ അതുപോലെ മറ്റ് ഒരുപാട് കളികളുണ്ടായിരുന്നു ഇന്നത്തെ കുട്ടികൾക്ക് അപ്രകാരമുള്ള കളികളിലൊന്നും താല്പര്യമില്ലാതെ മൊബൈലിലുള്ള കളികളിൽ മാത്രം അവരൊരു സ്ഥലത്തിരുന്ന് ചെയ്യുന്നതായ കളികളിലാണവർ വ്യാപൃതമായി കൊണ്ടിരിക്കുന്നത് അതവർക്ക് ഒരു ബുദ്ധിവളർച്ച അല്ലെങ്കിൽ ഒരു കളികളിലൂടെ തമ്മിൽ തമ്മിലുള്ള സ്നേഹം അതുപോലെ പരസ്പര ധാരണകൾ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുന്നുണ്ട് പക്ഷേ ഇന്നത്തെ ഈ കളികൾ കൊണ്ട് കുട്ടികൾക്ക് മറ്റുള്ളവരോടായിട്ടുള്ള സഹകരണമോ അല്ലെങ്കിൽ എങ്ങനെ കളികൾ മുമ്പോട്ട് കൊണ്ട് പോകാന്നുള്ള ഒരു എക്സ്പീ ഒരു അതിനുള്ള വളർച്ചയൊന്നും അവർക്ക് കിട്ടുന്നില്ല അങ്ങനെയാണിപ്പോൾ മൊബൈൽ കളികളികളാണവർ നിൽക്കുന്നത് പിന്നെ ക്രിക്കറ്റിലോട്ട് ക്രിക്കറ്റ് ഫുട്ബോള് ഇങ്ങനെയുള്ള കളികളും ഇന്നത്തെ കുട്ടികളിൽ കുട്ടികൾ ഇഷ്ടപ്പെടുന്നുണ്ട് അവർ കളിക്കുന്നുണ്ട്